എവിടുന്നാ വിളിക്കുന്നേ അ അ അ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്

ആ നമുക്ക് എങ്ങനെയുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃഷിയുള്ളതാണോ അതോ പുതുതായിട്ട് കൃഷി ചെയ്യാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ആണല്ലേ വീടാണോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നേ അതോ കൃഷിയും കൂടി കൂട്ടിയാണോ ആണല്ലേ താമസത്തിനു വേണ്ടിയിട്ടാണോ

ആണല്ലേ മുപ്പതു മുപ്പതു സെൻറ് അ അ ഇപ്പോള് ഇവിടെ ഇങ്ങനെ വീടുകള് കിട്ടാനുണ്ട് നമുക്ക് മുപ്പതു സെൻറ് ആ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങള് വരെ നമുക്ക് നോക്കാനുണ്ട് അപ്പോള് റോഡ് സൈഡ് റോഡ് സൈഡല്ലേ അപ്പോള് നമുക്കങ്ങനെ ആ വീടിനും സ്ഥലത്തിനും കൂടി വാർക്ക വീടാണോ ഉദ്ദേശിക്കുന്നത് മുറ്റത്തു കിണറുമല്ലേ മ്മ് മ്മ്

ആ അത്രെയും അത്രെയും ഉദ്ദേശിക്കുന്നു അത്രെയും ഉദ്ദേശിക്കുന്നു അല്ലേ അപ്പോള് നമുക്ക് അത്രെയും ഒരു വീട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ഒരു കോടി രൂപയൊക്കെ വരുകയില്ലേ ആ ഒരു റേറ്റിന് ആ ഒരു റേറ്റിലേ കിട്ടാനുള്ളൂ എന്നു തോന്നുന്നു മ് ആണല്ലേ എ ലക്ഷം ലക്ഷം എഴുപത്തിയഞ്ചു ലക്ഷം അല്ലേ അ അ അ എന്നാല് നോക്കാം പാർട്ടിയായിട്ടൊന്നു സംസാരിച്ചു നോക്കാം അങ്ങനെ ഒരെണ്ണം നമുക്കുണ്ടായിരുന്നു ഒരു ഒരു കോടിയൊക്കെയാണേ അവര് പറയുന്നതേ പാർട്ടിയായിട്ടൊന്നു സംസാരിച്ചു നോക്കാം അപ്പോള് അവർക്ക് എങ്ങനെയാണ് എമെർജൻസിയൊക്കെയാണെങ്കില് അവര് കുറച്ചും അ അ അ ഉള്ളൂ അ അ അ അ നമുക്ക് പാർട്ടിയുമായിട്ട് സംസാരിക്കുകയാണെങ്കിലൊരു ഇച്ചിരി പൈസയും കൂടെയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമായിരിക്കുമോ ഒരു മൂന്നാലഞ്ചു ലക്ഷം രൂപയും കൂടെയൊക്കെയുണ്ടാക്കിക്കൊടുക്കാൻ പറ്റുമായിരിക്കുമോ അ അങ്ങനെയാണെങ്കില് സംസാരിച്ചു നോക്കാം കേട്ടോ ആ എന്നിട്ടു വിളിച്ചാല് മതിയോ ഓക്കേ